ഞങ്ങളുടെ നാട്ടിൽ ധാരാളം മാസികകൾ ഇറങ്ങുന്നുണ്ട് പല കാറ്റഗറിയിൽ പെട്ട ആളുകൾക്കായി പല തരത്തിലുള്ള മാസികകളാണ് ഇറങ്ങുന്നത് വനിതകളെ സംബന്ധിച്ചാണ് വനിത കന്യക അങ്ങനെ തുടങ്ങിയ പല മാസികകൾ ഉണ്ട് വനിതകളുടെ ആരോഗ്യം അവരുടെ സൗന്ദര്യം അവരുടെ സങ്കല്പങ്ങള് അവരുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുക എന്നിങ്ങനെ തുടങ്ങിയ പല മേഖലകളും സംബന്ധിച്ചുള്ള മാസികകളാണ് വനിത കന്യക തുടങ്ങിയ പോലുള്ള മാസികകൾ അത് അവരുടെ ജീവിതത്തിൻ്റെ ഉന്നമനത്തിനും അതിന് വേണ്ടി പ്രവർത്തിക്കുന്നു അവർക്ക് വേണ്ട ആവശ്യമായ സാധനങ്ങൾ ലഭിക്കുന്ന അതിനെക്കുറിച്ച് വിവരങ്ങളൊക്കെ ഈ മാസികളിൽ നിന്നും അവർക്ക് ലഭിക്കാറുണ്ട് പിന്നെ അതേപോലെ കർഷകരെ സംബന്ധിച്ച് കർഷകർക്കായിട്ടുള്ള മാസികകൾ ധാരാളമുണ്ട് പല പല പ്രമുഖ പത്രങ്ങളുടെയും പേരിൽ കർഷകൻ കർഷകശ്രീ കർഷക മിത്രം എന്നീ തുടങ്ങിയ പല മാസികകളും ഇവിടെ നാം ലഭ്യമാണ്

തുടങ്ങി ഒരു വിത്ത് മൊട്ട് മുളപ്പിച്ച് അതിൽ നിന്ന് കായെടുക്കുന്നതും അത് വിപണം ചെയ്യുന്നതുമായ സാഹചര്യ സാധ്യതകളെ കുറിച്ചുള്ള പല കാര്യങ്ങളും തുടങ്ങി യിരിക്കുന്ന കാര്യങ്ങളാണ് ഈ മാധ്യമത്തിൽ വരുന്നത് കർഷകർക്ക് വിത്ത് എവിടെ നിന്ന് ലഭിക്കുന്നു അതേപോലെ അത് പരിപാലിക്കേണ്ട വിധങ്ങള് അതിന് ചെയ്യേണ്ട വളങ്ങള് അത് നമുക്ക് അതിൻ്റെ ഉൽപന്നങ്ങൾ എവിടെ വിൽക്കാം തുടങ്ങിയതും പിന്നെ കർഷകർക്ക് ഉപയോഗപ്രദമായ ഉപകരണങ്ങൾ കർഷക ഉപകരണങ്ങളായ മരുന്നടിക്കുന്നതിനും മരുന്ന് സ്പ്രേ ചെയ്യുന്നതിനും അത് തുടങ്ങി ധാരാ ധാരാളം ഉപകരണങ്ങൾ ഇന്ന് വിപണയിൽ ലഭ്യമാണ് അതിനെ കുറിച്ചുള്ള വ്യക്തമായ അറിവുകളും വിദഗ്ധരുടെ കാഴ്ചപ്പാടുകളും അത് എങ്ങനെ പ്രവർത്തിപ്പിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള അറിവുകളും എല്ലാം ഇതിൽ നിന്നും നമുക്ക് വ്യക്തമാണ് അങ്ങനെ കർഷകർക്കായിട്ടുള്ള ധാരാളം മാസികകളുണ്ട് ഇത് കർഷകർ ഉന്നമനത്തിന് വേണ്ടി

ബാലരമ ബാലമംഗളം ബാലഭൂമി തുടങ്ങി ധാരാളം മാസികകൾ മലയാളത്തിൽ ഉണ്ട് ഇതെല്ലാം കുട്ടികൾക്ക് വേണ്ടി കുട്ടികളുടെ പഠനത്തെ മലയാളം വായിക്കാനും പഠിക്കാനും ഒക്കെ അനുഭവം തന്ന ആയി വരുന്ന ധാരാളം മാസികകൾ ഞാനൊക്കെ എൻ്റെ ചെറുപ്പ കാലത്ത് ബാലരമയൊക്കെ വായിച്ചാണ് മലയാളം വായിക്കുക എന്നുള്ളൊരു ടാസ്ക് നമ്മള് പൂർത്തിയാക്കി എടുക്കുന്നത് അപ്പം ചെറു കഥകൾ ആണ് അതിൽ കൂടുതൽ വരുന്നത് ഈ കഥകൾ വായിക്കുന്നതിലൂടെ നമുക്ക് ഈ വായന പഠിക്കുവാനും അതിലൂടെ മലയാളത്തെ വായിക്കുവാനും ഒക്കെയുള്ള ധാരാളം ചിത്ര കഥകളാണ് അതിൽക്കൂടുതൽ ചിത്ര കഥകളാണ് അപ്പം ചിത്ര കഥകളാകുമ്പോൾ നമുക്കത് വായിക്കാൻ വായിക്കാൻ പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിലുള്ള കഥകളും ഒക്കെയാണ് ഈ ഒരുകൂട്ടം മാസികകൾ വരുന്നത് മാസികകൾ വായിച്ച് ബാലരമയിലെ മായാവിയും ഡിങ്കനും ഒക്കെ നമ്മൾ ഇപ്പളും ഓർത്തിരിക്കുന്ന കഥാപാത്രങ്ങളാണ് മാസികകളൊക്കെ കുട്ടികൾക്കായി പിന്നെ തീരെ ചെറിയ നേഴ്സറി പഠിക്കുന്ന കുട്ടികൾക്കായിട്ടുള്ള മാസികകളാണ് കളിക്കുടുക്ക മിന്നാ മിന്നി തുടങ്ങിയ ഇത് അക്ഷരങ്ങൾ അ ആ ഇ ഈ എൻ്റെ ആ ഓ ഒക്കെ പഠിക്കുന്നു കുട്ടികൾക്കായിട്ടുള്ള മാസികകളാണ് ഇത് വായിക്കുന്നത് പോലെ കുട്ടികൾക്ക് അക്ഷരം പഠിക്കുവാനും അതോരോ കളർ ചിത്രങ്ങളിലൂടെ അത് എഴുതി പഠിക്കുവാനുമൊക്കെ അവരെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള മാസികകളാണ് ആ എന്നെഴുതുക അ വരുന്ന ഉദാഹരണമായി ഒര് ആ വെച്ച് എഴുതുവാണെങ്കിൽ ആ കൂട്ടിവരുന്ന അക്ഷരങ്ങള് വാക്കുകള് ഒക്കെ ആണ് ആ എന്നൊരു പേജിൽ വരുന്നത് അപ്പം കുട്ടികൾക്ക് ആ വെച്ച് വരുന്ന വാക്കുകൾ പഠിക്കാനും ഇതെല്ലാം ഇതിനകത്ത് വളരെ അനവധിയായ കളർചിത്രങ്ങളോട് കൂടിയ കഥകളും ഒക്കെ വരുമ്പോൾ ആ കുട്ടികൾക്ക് ഇത് വളരെ പ്രയോജനപ്രദമായ ഒരു മാസികയാണ് പിന്നെ സാമ്പത്തിക രംഗത്തെക്കുറിച്ചുള്ള മാധ്യമം സാമ്പത്തികത മായ തലത്തിൽ ഉപയോഗിക്കുന്നവർക്കുള്ള സാമ്പത്തിക മാന മാസികകളും ധാരാളമുണ്ട് ഈ സാമ്പത്തിക മാസികകൾ വീക്ക് സാമ്പത്തികം അങ്ങനെ തുടങ്ങിയ സാമ്പത്തിക ഓഹരി വിപണി നില വാരത്തെക്കുറിച്ചും മറ്റും അറിയുന്നതിനുള്ള മാസികകളാണ് അങ്ങനെ സാമ്പത്തികകരമായി എങ്ങനെ നമ്മുടെ സാമ്പത്തികം മെച്ചപ്പെടുത്താം നമ്മുടെ കയ്യിലുള്ള സാമ്പത്തികം എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ള അതിനെക്കുറിച്ചൊക്കെ ഉള്ള വിവരങ്ങൾ നൽകുന്ന ഒരു മാസികയാണ് സാമ്പത്തികം പിന്നെ നോവലുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ചെറുകഥകൾ വായിക്കുന്നവർക്കുമായിട്ട് മനോരമ മംഗളം മാതൃഭൂമി തുടങ്ങിയ ഇവിടെയൊക്കെ മാസികകൾ ഉണ്ട് ആഴ്ചയിൽ ആഴ്ചയിൽ ഇറങ്ങുന്ന മാസികകൾ നമുക്ക് വായിക്കുകയും അതിലൂടെ നോവലുകള് മറ്റ് കഥകളും ഒക്കെ വായിക്കാനും ഒരു വായനാശീലം നമ്മളിൽ വളർത്തിെടുക്കാനും ഈ മാധ്യമങ്ങൾ മാസികകൾ നമ്മളെ ഒരുപാട് സഹായിക്കുന്നുണ്ട് മാസികകൾക്ക് എല്ലാ കഥകൾ കഥകളുടെയും മറ്റും ഒരു ശേഖരമാണ് ആഴ്ചയിൽ ആഴ്ചയിൽ തുടർക്കഥയായിട്ട് വരുന്ന കഥകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പിന്നെയുള്ളത് കർഷകൻ എന്ന് പറഞ്ഞു കാർഷികമാസികകൾ പറഞ്ഞു പറഞ്ഞു പിന്നെ ആരോഗ്യ മാസികകൾ നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് അറിയുന്നതിനുള്ള ആരോഗ്യ മാസികകൾ ധാരാളമുണ്ട് ധാരാളം ഉണ്ട് നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് അറിയുവാനും ആരോഗ്യം എങ്ങനെ മെച്ചപ്പെടുത്താമെന്നുമുള്ള ആരോഗ്യ മാസികകൾ ആരോഗ്യം ആരോഗ്യമാസിക അങ്ങനെ തുടങ്ങി പല പേരുകളിലായിട്ട് ഒത്തിരി ആരോഗ്യ മാസികകൾ ഇറങ്ങുന്നുണ്ട് എന്തെല്ലാം അസുഖങ്ങൾ നമുക്ക് വരാം എന്തെല്ലാം രോഗ ലക്ഷണങ്ങൾ കണ്ടാൽ അത് ഇന്ന അസുഖമായിരിക്കുവെന്നും ആ അസുഖം വന്നാൽ ഏത് ഡോക്ടറെ ആണ് കാണേണ്ടതെന്നും അത് എങ്ങനെ പരിഹരിക്കാമെന്നും ഒക്കെ അറിയാവുന്ന ആരോഗ്യ മാസികകളും ധാരാളമായിട്ടിറങ്ങുന്നുണ്ട് ഈ മാസികകളെല്ലാം നമുക്ക് വളരെ പ്രയോജനം പ പ്പെടുന്ന രീതിയിലുള്ള മാസികകളാണ് ആരോഗ്യത്തെക്കുറിച്ച് നമ്മുടെ ഉപബോധ നമുക്ക് ഉള്ളിലുള്ളതും നമുക്ക് മനസ്സിലാക്കുന്നതുമായ കാര്യങ്ങൾ ആണ് പിന്നെ സിനിമ വാരികകളുണ്ട് നമ്മുടെ മാലയാളത്തിലിറങ്ങുന്ന സിനിമകളെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങളും അവയുടെ ചിത്രങ്ങളും അതിലാരൊക്കെ അഭിനയിക്കുന്നു അതിൽ ആരൊക്കെ ഉണ്ട് ആരുടെ ഏതൊക്കെ ഗാനങ്ങളുണ്ട് അതിങ്ങനെ തുടങ്ങിയ അവയെക്കുറിച്ച് പ്രതിപാദിപ്പിക്കുന്ന ഒത്തിരി മാസികകളുണ്ട് സിനിമ നാന അങ്ങനെ തുടങ്ങി പല പേരുകളിലായിട്ട് ഒത്തിരി സിനിമ പ്രസിദ്ധീകരണങ്ങൾ ഉണ്ട് അപ്പം ഓരോ നടന്മാരുടെ നടിമാരുടെയൊക്കെ കാര്യങ്ങളും അവരുടെ പുതിയ വരാൻ പോകുന്ന സിനിമകളും റിലീസായ സിനിമകളും റിലീസായ സിനിമകളുടെ കുറിച്ചുള്ള അവ വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ തുടങ്ങിയവയെല്ലാം ശേഖരിച്ചുള്ള വിദഗ്ദമായൊരു മാസികയാണ് സിനിമ മാസിക ഈ സിനിമ മാസിക നമ്മൾ എല്ലാവർക്കും തന്നേണ് ഈ ഉപകാരപ്രദം സിനിമ സിനിമയോട് താല്പര്യമുള്ള എല്ലാവർക്കും ഇത് വളരെ ഉപകാരപ്രദമായ ഒരു മാസികയായിട്ടാണ് വരുന്നത് എല്ലാവരും പിന്നെ ഇത് കൂടാതെ നിരവധി പല പല ഭാഗങ്ങളിൽ ഉള്ള നിരവധി ഈ മാസികകൾ നമ്മുടെ ഇടയിലുണ്ട് എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായവയാണ് ഈ മാസികകളെല്ലാം